ഇപ്പോൾ നമ്മൾ വെള്ളം അരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വെള്ളമരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ് നമ്മളിപ്പം കൂടുതലായിട്ടും വെള്ളം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അതായത് നമ്മൾ കാട്ടിൽനിന്ന് വരുന്ന വെള്ളമാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പം അതിൽ നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഒരു കുഴിയൊക്ക കുത്തിയിട്ട് നമ്മൾ വെള്ളം നല്ല രീതിയിൽ ഊറി വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും അപ്പം അതു നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നേയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അരിപ്പയും കാര്യങ്ങളൊക്കെ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വെള്ളവും എന്താ പറയുക ഇപ്പം നല്ല ശുചീകരിച്ച് വരുന്ന വെള്ളമൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതു നമ്മൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നേയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടാങ്കിലേയ്ക്കാണ് നേരിട്ട് വിടുന്നത് അപ്പോൾ ടാങ്കിലേക്ക് നേരിട്ട് വിടുന്ന സമയങ്ങളിൽ ഇത് കുറേ നാൾ നമുക്ക് നിൽക്കുമ്പം ഈ ചളിയും കാര്യങ്ങളൊക്കെ അടിയിലേയ്ക്ക് അടിഞ്ഞു കൂടിയിട്ട് നല്ല രീതിയിലുള്ള വെള്ളം മേലെയുണ്ടാവും പിന്നെ അല്ലാണ്ടുള്ള അതു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ബക്കറ്റിലൊക്കെ പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ ചളിയും കാര്യങ്ങളൊക്കെ അടിയിൽ ഊറി കിടക്കും മേലെയെന്ന് നമ്മൾ നല്ല നല്ല രീതിയിലുള്ള തെളിനീര് വെള്ളം നമുക്ക് മുകളിൽ നിന്ന് കിട്ടും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും